കോഴികൾക്ക് വരുന്ന ഒരു അസുഖമാണ് കോഴി വസന്ത ഇത് തടയാൻ ഏത് ഒരു കോഴിക്കാണോ ഈ അസുഖം ബാധിച്ചത് ആ കോഴിയെ മാറ്റി വേറെ നിർത്തുക ആ കോഴിയെ മറ്റു കോഴികളുടെ കൂടെ ഭക്ഷണം കഴിക്കാനോ മറ്റു കോഴികളുടെ കൂട്ടിൽ ഇടാനൊ അനുവദിക്കാതെ ഈ ഒരു കോഴിയെ മാത്രം അല്ലെങ്കിൽ ഇ അസുഖം വന്ന കോഴികളെ മാറ്റി നിർത്തുകയും മറ്റു കോഴികളുമായി സഹവാസം ഇല്ലാതാക്കുകയും ചെയ്യുക പിന്നെ ഈ കോഴികൾക്ക് അസുഖം വരുന്നത് ഒരു കോഴിക്ക് അസുഖം വന്നാൽ തന്നെ നമ്മൾ മറ്റു കോഴികൾക്കും അഡ്വാൻസ് ആയിട്ട് മുൻകൂട്ടി മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അത് പടരാതെയും മറ്റു കോഴികൾക്ക് പകരാതെയും നമുക്ക് നോക്കാൻ സാ നമുക്ക് മറ്റു കോഴികൾക്ക് പകരാതെ നോക്കാൻ നമുക്ക് സാധിക്കും ഇനി മൃഗങ്ങൾക്ക് വരുന്ന അപകടങ്ങളെ കുറിച്ച് നമ്മൾ സമീപിക്കേണ്ടത് വെറ്ററിനറി ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വെറ്ററിനറി ഡോക്ടറെ ആണ് വെറ്ററിനറി ഡോക്ടറുടെയടുത്തു പോയാൽ മൃഗങ്ങൾ എന്തുകൊണ്ടാണ് കോഴി ഭക്ഷണം എടുക്കാത്തത് അല്ലെങ്കിൽ കോഴി എന്തുകൊണ്ടാണ് അതിൻ്റെ വേസ്റ്റ് വൈറ്റ് കളറായി മാറുന്നത് എന്നീ കാരണങ്ങളെല്ലാം നമുക്ക് അവർ പറഞ്ഞു തരികയും അതിനുള്ള മെഡിസിൻ അവിടെ നിന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും